ഞാൻ ഒരു ഏഴ് ദിവസങ്ങൾക്ക് മുൻപ് ഒരു മൊബൈൽ ഫോൺ റെഡ്മി ഓർഡർ ചെയ്തിരുന്നു നിങ്ങളത് മൂന്നാം പക്കം ഡെലിവറി ചെയ്യുമെന്ന് ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ഏഴ് ദിവസമായിട്ടും അതേപ്പറ്റി യാതൊരു വിവരവും ഇല്ല അത് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള വലിയൊരു വീഴ്ചയാണ് നിങ്ങൾ പബ്ലിസിറ്റി ഇതിൻ്റെ അകത്ത് കൊടുത്തപ്പഴേക്കും മൂന്നാം പക്കം നിങ്ങളുടെ കൈകളിലെത്തുമെന്നാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നോ ഒന്നും ഇതുവരെ എന്നെ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ സത്വര നടപടി സ്വീകരിക്കണം കാരണം ഞാൻ രണ്ട് ദിവസത്തേക്ക് ഈ സ്ഥലത്ത് കാണിയേല അപ്പോഴേക്കും ഇത് വരികയാണങ്കിൽ ഓ ടി പി യോ വല്ലതും വരുകയാണെങ്കിൽ അത് അതിൻ്റെ കാര്യങ്ങള് മാത്രമല്ല ഡെലിവറി അത് കൊടുക്കുന്നത് എവിടെ ആയിരിക്കും അടുത്ത വീട്ടിൽ ലെ എൻ്റെ അഭാവത്തില് അടുത്ത വീട്ടിലെ ആളിന് കൊടുക്കാൻ പറ്റുവോ ഓടിപി ഫോണിൽ കൂടി വരുന്നത് കൊണ്ട് ഞാനവിടെ നിന്നാണങ്കിലുവത് ചെയ്യും അത് നിങ്ങൾക്ക് അവർ അടുത്ത വീട്ടിൽ ഡെലിവറിയ്യാൻ സാധിക്കുമോ കാരണം ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോകുന്നത് കൊണ്ട് വീട്ടിലാരും ഉണ്ടാകേലാ ആ സമയത്ത് ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ എന്നത്തേക്കത് ഡെലിവറി കിട്ടും എന്താണ് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന പാളിച്ച ഇത്രയും ദിവസം താമസിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ പോലെയുള്ള ഒരു സ്ഥാപനത്തിന് വലിയ ഒരു ഡിസ്ക്രെഡിറ്റ് ആയിട്ട് തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മാത്രമല്ല നിങ്ങൾ ടേംമ്സ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് മൂന്നാം പക്കം ഇവിടെ ഡെലിവറി ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ എന്താണെന്നുള്ളതിനെപ്പറ്റി അറ്റ്ലീസ്റ്റ് ഒന്ന് താമസം വന്നത് എവിടെയാണ് എന്നതിനെ പറ്റി എന്നെയൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്രകാരമുള്ള ഒരു ചോദ്യത്തിനോ ആശങ്കക്കോ ഒന്നും ഇടവരികേലായിരുന്നു അതുകൊണ്ട് ഇക്കാര്യത്തിൽ വേണ്ട നടപടികളെ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുക അയക്കാൻ സാധിച്ചില്ലങ്കിൽ അത് എന്ത് കൊണ്ടാണെന്നുള്ള മറുപടി കൂടി പറയേണ്ടിയിരിക്കുന്നു അനു ഉണ്ണാൻ പോവുകയാണോ